നമ്മുടെ നാട്ടിലെ സാംസ്കാരിക ഉത്സവമാണ് ഓണം ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്നത് പൂക്കളാണ് പണ്ടൊക്കെ കുട്ടി ചെറിയ കുട്ടികൾ തൊടിയിലും പറമ്പിലും പോയാണ് പൂക്കൾ പറിക്കുന്നത് എൻ്റെ ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുന്നത് ഞാനും കൂട്ടുകാരും കൂടി അടുത്തെ തൊടിയിലും പറമ്പിലും പോയി പൂക്കൾ ശേഖരിച്ച് പൂ അത്തപ്പൂക്കളം ഒരുക്കുകയും ഓണസദ്യ കഴിക്കുകയും ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ ഓണം എന്ന് പറയുമ്പോൾ ഓണസദ്യ പത്തു കൂട്ടം കറിയും പായസവും ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് കൂടുതലായും ഓടി ഓടി വരുന്നത് ഇത് ഓണം ഓണക്കളികൾ ഓണ പാട്ടുകൾ പണ്ടൊക്കെയാണെങ്കിൽ മൊബൈലിൻ്റെ അഭാവമില്ലാത്ത പണ്ടുള്ള ഏത് ഉത്സവങ്ങളിലായാലും മുതിർന്നവർ കുട്ടികൾക്ക് പല കഥകളും എല്ലാം പറഞ്ഞു കൊടുക്കുവായിരുന്നു ഇപ്പോഴത്തെ ജനറേഷനാണെങ്കിൽ അതിനെപ്പറ്റി അറിയാതെ പോകുന്നുണ്ട് പലപ്പോഴും ഓണ ഓണത്തിൻ്റെ പല മധുരമായ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി കിടക്കുന്നുണ്ട് ഓണം നമ്മുടെ സാംസ്കാരിക ഉത്സവത്തിൽ ഒന്നാണ് ഓണം എന്ന് പറയുന്നത് മാവേലി മൂന്നടി മണ്ണിന് വേണ്ടി വാമനന് തൻ്റെ രാജ്യം വിട്ടു കൊടുത്ത കഥയൊക്കെ മുത്തശ്ശിമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഇത്തിരി സന്തോഷവും ഇത്തിരി ദുഃഖവും നിറഞ്ഞ ഒരു ഉത്സവം കൂടിയാണ് ഓണത്തിൻ ഓണം ഓണവിശേഷങ്ങൾ പലതരമുണ്ട്